എൻ്റെ പ്രാദേശിക ഭാഷ മലയാളമാണ് മലയാളത്തിൽ ഞാൻ ടി വിയിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പരുപാടിയുണ്ട് അതിന്റെ പേര് ഉപ്പും മുളകും എന്നാണ് അത് ഒരു കുടുംബ ജീവിതമാണ് അച്ഛനും അമ്മയും നാല് മക്കളും ഉൾപ്പെടുന്ന നാല് അല്ല അഞ്ച് മക്കൾ ഉൾപ്പെടുന്ന ഒരു കുടുംബ ജീവിതത്തിനെയാണ് അത് കാണിക്കുന്നത് വളരെ രസകരം കരമായ രീതിയിൽ അത് അവതരിപ്പിക്കുന്നത് കൊണ്ടാണോ എന്തോ തമാശ അതിനകത്ത് ഒത്തിരി ഉണ്ട് അത് കൊണ്ടൊക്കെ ആകാം എനിക്ക് അത് വളരെ ഇഷ്ട്ടപ്പെട്ട ഞാൻ മിക്കവാറും കാണാറുള്ള ഒരു പരിപാടിയാണ് അത് മറ്റ് ഭാഷയാകുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷിൽ ഒരുപാട് സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും സിനിമകൾ കാണുന്ന ഒരാളാണ് ഇംഗ്ലീഷ് സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെത്തന്നെ ഞാൻ സീരീസുകൾ കാണാറുണ്ട് ഇംഗ്ലീഷ് സീരീസ് ഒത്തിരി കാണാറുണ്ട് സീരീസ് എനിക്ക് ഏറ്റവും ഇഷ്ട്ടപ്പെട്ട കുറെ ഒത്തിരി സീരീസുകൾ ഞാൻ കാണാറുണ്ട് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത് പീക്കി ബ്ലൈൻഡേർസ് വെഡ്നെസ്ഡേ ഒക്കെയാണ് ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ട്ടമുള്ള വിനോദ പരിപാടികളാണ്